ഞാൻ എൽ പി ജി കണക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് എനിക്ക് വിറകടുപ്പിൽ വെച്ചിട്ട് പെട്ടെന്ന് പാകം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുന്ന ഗ്യാസ് അടുപ്പ് ഉള്ളതു കൊണ്ട് എനിക്ക് രാവിലെ കുട്ടിക്കൾക്ക് ഉസ്കൂളിൽ പോകുമ്പോഴൊക്കെ വേഗത്തിൽ ഭക്ഷണം ബ്രേക്ക് ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും എല്ലാം പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ട് വിറകടുപ്പ് ആണെങ്കിൽ അങ്ങനെയൊന്നും പെട്ടെന്ന് ഒന്നും വേഗത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യില്ല മഴയുണ്ടെങ്കിൽ മഴയത്ത് വിറക് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ അടുപ്പ് ഒന്നും കത്തുവും ചെയ്യില്ല അപ്പം പെട്ടെന്ന് ഒന്നും എനിക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴേക്കും അതൊന്നും ഭക്ഷണം ഒന്നും റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഗ്യാസ് അടുപ്പ് തന്നെ ആണ് ഉപയോഗിക്കുന്നത്